വിദ്യാഭ്യാസത്തെ സാങ്കേതികവിദ്യയുടെ ഉപയോഗം വിദ്യാർത്ഥികളുടെ പഠനത്തെ എങ്ങനെ സാധിക്കുന്നു എന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ വിദ്യാഭ്യാസം വിദ്യാഭ്യാസത്തെ സാങ്കേതിക വിദ്യയുടെ ഉപകരണം നല്ലതായും ചീത്തയായും ബാധിക്കുന്നുണ്ട് നല്ലതായ കാര്യങ്ങളെന്തൊക്കെയാ നോക്കുകയാണെങ്കിൽ പണ്ടത്തെ കാലത്തില്ലാത്ത ഒട്ടനവധി സാങ്കേതികൾ വന്നു അതായത് ഇപ്പം കുട്ടികൾക്ക് ഒരു കുഞ്ഞു ഫോണിൽക്കൂടെ അതായത് ഓൺലൈൻ എഡ്യൂക്കേഷൻ ഓൺലൈൻ വിദ്യാഭ്യാസം നമുക്ക് നേടാവുന്നതാണ് ദൂരെ ഒരു ഇപ്പം ദൂരം ഒരു പ്രശ്നം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒരു സാമ്പത്തികം ഇല്ലെങ്കിൽ വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ അവന് വിദ്യാഭ്യാസം നേടാവുന്നതാണ് സാങ്കേതികവിദ്യയുടെ വളർച്ച കൊണ്ട് തന്നെയാണ് ഇത് നടന്നത് തന്നെ പിന്നീട് പറയുകയാണെങ്കിൽ ഏതൊരു കുട്ടിക്കും ഏതൊരു കാര്യം അതായത് അവന് ആവശ്യമായി അവന് പഠിക്കാന് ആവശ്യമായ ഉപകരണങ്ങൾ ഫോൺ വഴിയോ ലാപ്ടോപ്പ് വഴിയോ അവന് ഇപ്പം നേടാനും പിന്നെ എ ഐ ഒക്കെ വന്നതോടുകൂടി അവന് വേണ്ട ഉപകരണങ്ങൾ അല്ലെങ്കിൽ പ്രസൻറ്റേഷൻ നടക്കണമെങ്കിൽ പ്രൊജക്റ്റ് തയ്യാറാക്കുക അതിനുള്ള ഐഡിയാസ് അല്ലെങ്കിൽ അതിനുള്ള അതിനുള്ള അറിവുകളൊക്കെ ഇതുവഴിയൊക്കെ നമുക്ക് നേടാവുന്നതാണ് പിന്നീട് ഇപ്പം മൊബൈൽ ഫോൺസും ലാപ്ടോപ്പും ടി വിയൊക്കെ വന്നതോടൂടി നമുക്ക് ഓൺലൈൻ എഡ്യൂക്കേഷൻ അതായത് വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് പഠിക്കാം ആവശ്യമായ അറിവുകൾ നമുക്ക് നേടാവുന്നതാണ് പിന്നെ അവന് ആവശ്യമായ മറ്റു ഉപകരണങ്ങൾ ഓൺലൈൻ വഴി ഓർഡർ ചെയ്ത് അവന് മേടിക്കാവുന്നതാണ് പിന്നെ മോശമായി എങ്ങനെ ബാധിക്കുന്നു എന്ന് നമുക്ക് നോക്കുകയാണെങ്കിൽ ഒട്ടനവധി കുട്ടികൾ മൊബൈൽ അഡിക്റ്റ് ആവുക അതായത് മൊബൈൽ അഡിക്റ്റ് ആവുക അതുവഴി എപ്പോഴും സമയം ചെലവഴിക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവനെ പഠിക്കാനുള്ള സമയം അവന് ലഭിക്കുന്നില്ല അവന് പഠനത്തിൽ നിന്ന് പിന്നോക്കം പോകുന്നു സീ ഇതൊരു വലിയ പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ കുട്ടികൾ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി സാങ്കേതിക വിദ്യ ഉപയോഗിക്കുയാണെങ്കി ഒട്ടു ഒത്തിരി കാര്യങ്ങൾ ഒത്തിരി കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിൽ മുൻപന്തിയിലൊക്കെ എത്താൻ സാധിക്കുമെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് പേരെൻറ്സും ടീച്ചേഴ്സും അതായത്ത് രക്ഷകർത്താക്കളും അദ്ധ്യാപകരും ഒക്കെ ഈ കാര്യങ്ങൾ ശ്രദ്ധപുലർത്തണം കുട്ടികൾ സാങ്കേതിക വിദ്യ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നെന്ന് നമുക്ക് നോക്കേണ്ട ആവശ്യമുണ്ട്